നമ്മള് പൂന്തോട്ട കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുക സ്റ്റാർട്ടേഴ്സിന് പറ്റുന്ന എന്താണെന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു തരാം നമ്മള് ഒരിക്കലും നഴ്സറിയിൽ പോയിട്ട് ചെടി വാങ്ങി വെക്കരുത് അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിപാലിക്കാൻ എങ്ങനെയാ എന്നൊന്നുമറിയില്ല അത് ആ പൂത്ത് നിൽക്കുന്ന കാലം മാത്രം അത് നന്നായിട്ട് നിൽക്കുള്ളൂ പൂവ് ഉള്ള ചെടിയാണെങ്കിൽ ആ പൂത്ത് നിൽക്കുന്ന കാലം മാത്രമേ അത് ഉള്ളൂ അതുകഴിഞ്ഞ് അത് നശിച്ചുപോകും ഇൻഡോർ ആണെങ്കിലും പരിപാലിക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ നമ്മൾ എന്താ ചെയ്യുക വേണമെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക്

ഒക്കെ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് നിറക്കുക നിറച്ചിട്ട് നമ്മുടെ അയൽവക്കത്തെ വീട്ടിലോ അതല്ലെങ്കിൽ അടുത്തുള്ള ആരുടെയെങ്കിലും അടുത്തു നിന്ന് ഒരു ചെറിയ കൊമ്പ് വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുക അത് നട്ടു വരുമ്പോ നമുക്ക് അത് എങ്ങനെ നട്ടു പിടിപ്പിക്കുക നമ്മള് നട്ടുപിടിപ്പിക്കുമ്പോ ആണ് അതിനൊരു കൂടുതൽ വേഗത്തിലാവുക അപ്പോൾ നമ്മളത് നട്ടുപിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കണമെന്നില്ല നമ്മുടെ പൈസ പോകാനും ചാൻസുണ്ട് അപ്പോ നട്ട് അത് നട്ടു പിടിപ്പിക്കുക ഒറ്റയടിക്ക് ചിലപ്പോൾ പിടിക്കാത്തത് ഉണ്ടാവും ചിലപ്പോൾ പിടിക്കുന്നതുണ്ട് വെള്ളത്തിലിട്ട് വേര് വന്ന് പിടിപ്പിക്കുന്നതും റോസാ കൊമ്പ് നട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ പിടിക്കും പിടിചോട്ടെ നമ്മൾ ഒരു പത്ത് ചട്ടിയിൽ ഒരു അഞ്ച് ചട്ടി പിടിക്കുമല്ലോ പിന്നെ അഞ്ചെണ്ണം ചട്ടി ബാക്കിയുണ്ടാവില്ലേ ആ അഞ്ച് ചട്ടിയിലെ പിന്നെ ആ പോയ ചെടികൾ പിന്നെ ഒരിക്കൽ പോയിട്ട് വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് കിട്ടും വാങ്ങിച്ചു വെക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ജമന്തി അങ്ങനെ നിൽക്കില്ല എന്നാലും ജമന്തി വാങ്ങിച്ചു വെച്ചിട്ട് ആ പൂക്കളോടെ അത് കഴിഞ്ഞു നിന്നില്ല നാശമായിപ്പോയി കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ എത്ര പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് നൂറ്റി ഇരുപത് രൂപയോ നൂറ്റി മുപ്പത് രൂപയോ അങ്ങനെ ആയിരുന്നു അന്ന് ചട്ടിക്ക് അധികമൊന്നും ആയിട്ടില്ല ഒരു ഒന്നരവർഷം മുമ്പ് അപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് അയൽവക്കത്തെ വീട്ടിലൊക്കെ ഉള്ള ചെടിയുടെ കൊമ്പ് കൊണ്ടുവന്നിട്ട് നട്ട് വെക്കും ഒരു ചട്ടിയിൽ തന്നെ അതിൻറെ തന്നെ രണ്ടു മൂന്ന് കൊമ്പ് നടും അപ്പോൾ ഏതെങ്കിലും ഒന്ന് പിടിക്കുമല്ലോ ആ പിടിച്ച അതിനെ വെള്ളവും കാര്യങ്ങളൊക്കെ നേരാംവണ്ണം നോക്കി അത് പൂക്കുകയാ ചെയ്യുക അല്ലാതെ വാങ്ങിച്ചു വെക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്